എൻ്റെ സന്തോഷമെന്നുപറഞ്ഞാല് എൻ്റെ മോളെ കല്യാണം കഴിച്ച് കൊടുത്ത് പിന്നെ ആദ്യം അനക്ക് ഒരു വീട് ആയി പിന്നെ ചെറിയൊരു വീട് കെട്ടി അങ്ങനൊക്കെകഷ്ടപ്പെട്ട് കടമെല്ലാം ആക്കി ചെറിയൊരു വീട് എടുത്ത് മോ പിന്നെ അത് വീട്ടിക്ക് കേറിക്കൂടല് കഴിഞ്ഞ് പിന്നെ മോളെ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് വർഷമായി അവൾക്ക് ഒരു മോനുണ്ട് പിന്നെ അവൻ ഇടക്ക് വരും അനക്ക് ഒരു മോളേയുള്ളു അപ്പൊൾ ഇടയ്ക്കിടയ്ക്ക് വരും എന്നെയും ഓളെ അച്ഛനേയും കാണാൻ വേണ്ടി വരും അപ്പൊൾ മോനേയും കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷാണ് അതാണ് നമുക്ക് ഏറ്റവും വല്യ സന്തോഷം പിന്നെ അവരിവിടുന്ന് വന്നിട്ട് പോകുമ്പം നമുക്ക് ഭയങ്കര സങ്കടായിട്ട് മാറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവര് വരും അതുകൊണ്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് അങ്ങനെ ഇരിക്കും അത്രേയുള്ളു